ഹലോ ഗുഡ് ഈവനിംഗ് മൈ ജി ഷോറൂമാണല്ലോ പറയൂ മാേഡം ഹെച്ച് പീ യുടെ ഏത് മോഡലാണ് മാഡം ആ ഓക്കെ പറയൂ ഹാങ് ആവുന്നുണ്ടോ അങ്ങനെ അങ്ങനെ വരാൻ സാധ്യത ഇല്ലല്ലോ അത് എന്നാണ് അത്രയ്ക്ക് നിങ്ങൾ സ്റ്റോറേജ് യൂസ് ചെയ്തിട്ടുണ്ടോ ലാപ്പിൻ്റെ മാഡം അങ്ങനെ വരാനുള്ള സാധ്യത വളരെ കുറവാണ് കാരണം ഒന്ന് ഹെച്ച് പീ യുടെ ബ്രാൻഡിൻ്റെ അങ്ങനെത്തെയൊരു അത്യാവശ്യം സ്പീഡുള്ള ലാപ്ടോപ്പുകളാണ് പിന്നെ അത് സ്റ്റോറേജ് എന്തെങ്കിലും കൂടുകയോ അല്ലെങ്കിൽ വേറെന്തെങ്കിലും ആപ്ലിക്കേഷൻസ് എന്തെങ്കിലും ഡൗൺലോഡ് ചെയ്തിടുകയോ അങ്ങനെ വല്ലതും ചെയ്തിട്ടുണ്ടോ വൈറസ്സ് ഓ ലാപ്ടോപ്പ് താഴെ വീണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ആയിരിക്കണം കാരണം റാം എന്തെങ്കിലും എഫക്റ്റഡ് ആവാനാണ് സാധ്യത മ് അ ഹലോ അല്ല റാം എന്തെങ്കിലും ഡാമേജ് ഉണ്ടാവാൻ സാധ്യത ഉണ്ട് കേട്ടോ അതാണ് കാരണം അല്ലാതെ ഒരിക്കലും എച്ച് പി യുടെ ഒരു പ്രോഡക്റ്റ് ഇത്രയും അങ്ങനെ ലോയാകാനുള്ള സാധ്യത കുറവാണ് ഇല്ല അങ്ങനെ വരത്തില്ല അത് വരത്തില്ല എനിക്ക് തോന്നുന്നു മോസ്റ്റ്ലി മാഡത്തിൻ്റെ കയ്യിൽനിന്ന് ഈ തറയിൽ വീണതിന് ശേഷമാണ് ഈ പ്രശ്നം കാണുന്നത് ഓ അങ്ങനെയാണെങ്കിൽ ഇത് പ്രോബ്ലം ആണ് മാഡം എന്നാ ഒന്ന് ഏതാ അതിൻ്റെ പ്രശ്നം ആവാനാണ് സാധ്യത അങ്ങനെ പ്രോബ്ലം അതിൻറെ വാറണ്ടീയിൽ കവറ് ആവത്തില്ല ഫിസിക്കൽ ഡാമേജ് കിട്ടത്തില്ല അത് കൊണ്ട് വരണം നമ്മുടെ സർവീസ് സ്റ്റേഷന് ഉണ്ട് സർവീസ് നമ്പറ് മാഡത്തിന് ഞാൻ ഇത് വാട്സപ്പ് നമ്പറാണോ അപ്പം ഞാൻ അവിടുത്തെ സർവീസിൻ്റെ കോൺടാക്ട് ചെയ്യേണ്ട നമ്പറും ബുക്ക് ചെയ്യാനുള്ള ലിങ്കും കാര്യങ്ങളന്നും ഞാൻ ഷെയറ് ചെയ്യാം അപ്പം അതിലേക്ക് മാഡം അത് അപ്ഡേറ്റ് ചെയ്യണം അപ്പം മോഡലിൻ്റെ ഫോട്ടോ എല്ലാംകൂടെ അതിൽ അപ്ലോഡ് ചെയ്യേണ്ടി വരും ഇത് പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ മാഡത്തിൻ്റെ വേറൻറ്റി കവറേജ് കിട്ടാൻ ചാൻസ് കുറവാണ്

ഇല്ല പക്ഷെ അത് ഫിസിക്കൽ ഡാമേജ് കിട്ടത്തില്ല മാഡത്തിന്റെ കയ്യിൽനിന്ന് താഴെ വീണിട്ട് പറ്റിയതാണ് കാരണം അല്ലെങ്കിൽ അത് നമ്മുടെ ഈ പറയുന്ന വാറൻണ്ടിയിൽ കവർ ചെയ്യേണ്ടതാണ് പിന്നെ അത് നോക്കണം കേട്ടാ കാരണം ഇത് താഴെ വീണ് ഇത് വേറെ എന്തെങ്കിലും ഇതിൻ്റെ ഐ സി യിലോ ഒക്കെ ചേഞ്ച് പൊട്ടലോ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് നോക്കിയാലെ അറിയാൻ പറ്റത്തുള്ളൂ ആ എന്തായാലും ഒരു അത് അത് നോക്കണം അതിൻ്റെ പാർസ് എന്തെങ്കിലും വരേണ്ടതുണ്ടെങ്കിൽ സമയം എടുക്കും ഇല്ലെങ്കിൽ അല്ലെങ്കിൽ കുഴപ്പം ഇല്ലായിരുന്നു പക്ഷെ പാർസ് എന്തെങ്കിലും ഡിലേയ്ഡ് ആവണമെങ്കിൽ ഒരു വൺ മന്ത് വരെ എടുക്കും അല്ലെങ്കിൽ ഒരു ഫൈവ് ഡേയ്സിനകത്ത് കിട്ടും

പക്ഷെ അത് അത് ഇപ്പോൾ പാർട്സ് അവൈലബിൾ ആണെങ്കിൽ നമുക്ക് ത്രീ ഡയ്സും ഫൈവ് ഡേയ്സിനകത്ത് തരാമെന്ന് പറയാൻ പറ്റത്തുള്ളൂ പക്ഷേ ഇനി ഇപ്പോൾ അത് അങ്ങനെ അല്ലാത്തത് കൊണ്ട്

ഇല്ല ഇല്ല അങ്ങനെ തരത്തില്ല മാഡം അങ്ങനെ തരത്തില്ല മാഡം എന്തായാലും വാട്സപ്പില് ഷെയർ ചെയ്തേക്കാം ഞാൻ ഡീറ്റെൽ കേട്ടോ താങ്ക് യൂ താങ്ക് യൂ താങ്ക് യൂ